ഞങ്ങളുടെ നാട്ടിൽ ഹോംസ്റ്റേ എന്നു പറഞ്ഞാൽ താമസിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ അവർ കൊടുക്കുന്ന വാടക വളരെ കുറവാണ് പിന്നെ വീടുകളാണ് വീടുകളിലും ഉണ്ട് ഞങ്ങളുടെ ഭാഗത്ത് വീടുകൾ ഇഷ്ടം പോലെയുണ്ട് അങ്ങനെ കൊടുക്കുന്നത് പക്ഷെ ഭയങ്കര പൈസ കുറവാണ് വിനോദസഞ്ചാരികളും മറ്റേ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട് ഞങ്ങളെ വീടിന്റെ അടുത്തല്ല കുറച്ച് വിട്ടിട്ടാണെങ്കിലും സൗകര്യങ്ങളുള്ള എല്ലാ സ്ഥലവും ഉണ്ട് അവിടെ അങ്ങനെ എല്ലാവരും വന്നു താമസിക്കുമ്പോൾ ഇതാണ് ഈയൊരു പ്രശ്നമാണ് നമുക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത് വാടക ഇല്ലാത്തത് ചെറിയൊരു വാടകയ്ക്കാണ് എല്ലാവരും വന്നു താമസിക്കുക അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ ഒരു ചെറിയൊരു മടിയാണ് അതാണ് ഞങ്ങളുടെ നാടിന്റെ ഇത്